എന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് വിജയമാണ് സ്വന്തം കഴിവ് കണ്ടെത്തി അതിൽ അതിലൂടെ ജീവിതത്തിൽ വിജയം കണ്ടെത്തുന്നതിലും വലുതായ സന്തോഷമൊന്നുമില്ലെന്നാണ് എൻ്റെ വിശ്വാസം ജീവിതത്തിൽ വിജയിച്ച് ആ വിജയത്തിലൂടെ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് നമ്മൾ സന്തോഷിക്കുന്നതിലൂടെ നമ്മുടെ മാതാപിതാക്കളുടെ കഷ്ടപ്പാടിനും അവരുടെ ത്യാഗത്തിനും നമ്മൾ ഒരു വിലകല്പിക്കുകയാണ് ചെയ്യുന്നത് ജീവിതത്തിൽ വിജയിച്ച് നമ്മളാലാകുന്ന വിധം മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുകയും അവർക്ക് വേണ്ട സുഖങ്ങളും സന്തോഷങ്ങളും നൽകുകയും ചെയ്യുന്നതാണ് ഒരു മനുഷ്യന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സന്തോഷം അതിനായി നമ്മൾ ചെയ്യേണ്ടത് നന്നായി പരിശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് ഇത്തരത്തിൽ നമ്മൾ വിജയിക്കുന്നതിലൂടെ നമ്മുടെ മാതാപിതാക്കളേയും വിജയിപ്പിച്ച് അതിൽ അഭിമാനം കണ്ടെത്തുക എന്നുള്ളത് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും തൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തതും ഏറ്റവും സന്തോഷം നൽകുന്നതുമായ ഒരു കാര്യമാണ്